രണ്ട് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആറ് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഒന്ന്